ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്ക്കൂൾ അല്ലെ എൽ കെ ജി യിലേക്കൊരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു

കൊച്ചിൻ്റെ പേര് ആര്യ

വീട് പുൽപ്പള്ളി

ബിജു ബിജു ബൈജു രണ്ടും സെയിം നെയിം തന്നെ അ അ അമ്മൻ്റെ പേര് ശാന്ത അച്ഛൻ സാധാ കൂലിപണിയാണ്

ഇംഗ്ലീഷ് മീഡിയം

ഇല്ല ആരും ഇല്ല

മാസം പതിനായിരം അല്ലേ

ബുക്ക് ഫ്രീ ആണോ അതോ അതിനും പൈസ തരണോ

ഓക്കേ

ഓക്കേ യൂണിഫോമിൻ്റെ കാര്യങ്ങളോ

അതിന് എത്ര ആയിരിക്കും വരുന്നത് അ അ അ പുൽപ്പള്ളി തന്നെ പുല്പള്ളിയിൽ നിന്ന് ഇനിയും ദൂരം ഉണ്ടെങ്കിൽ ചാർജ് കൂടുമോ

ഓക്കേ വേറെ ഡീറ്റെയിൽസ് ഇതിപ്പം എപ്പഴായിരിക്കും ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണല്ലേ ഓക്കേ നെക്സ്റ്റ് വീക്ക് തന്നെ വരാൻ പറ്റില്ലേ